ഹലോ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ ആണോ അതെ ഞാൻ വിളിച്ചതേ ഞാൻ കഴിഞ്ഞദിവസം ഐബെലിൻ്റെ ഒരു ഹെഡ്ഫോണ് ഓഡർ ചെയ്തായിരുന്നു അപ്പോളെ ഞാൻ ഓഡറ് ചെയ്ത സമയത്ത് നെറ്റിനെന്തോ കംപ്ലയിൻറ്റ് ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ഓർഡറ് ശരിയായില്ലായിരുന്നു അപ്പൊഴേ ഞാൻ വീണ്ടും ഒരുതവണ കൂടി ഓഡറ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി പിന്നീട് ഞാൻ നോക്കിയപ്പോൾ രണ്ടുപ്രാവശ്യം ഓഡർ ചെയ്തതായിട്ട് എനിക്ക് മെസ്സേജ് വന്നു അപ്പോൾ എനിക്ക് ഇതിൽ ഒരു ഓഡർ ഒന്ന് കാൻസല് ചെയ്യണം അപ്പോൾ ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നെ ഒന്ന് സഹായിക്കാമോ ആ ഓക്കേ പറയാം നയൻ ഫോർ നയൻ ഡബിൾ ഫൈ ഡബിൾ എയിറ്റ് റ്റു സീറോ നയൻ കിടങ്ങറ ഞാൻ ഫ്ളിപ്കാർട്ടിലാണ് ഓഡർ ചെയ്തത് ഡെയ്റ്റ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ഫസ്റ്റ് ഓഡർ രാവിലെ പത്ത് മണിക്കായിരുന്നു അത് എനിക്ക് ഫെയിൽ ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഓഡർ ചെയ്തു അത് പത്ത് മുപ്പതിനായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്കൊന്ന് കാൻസല് ചെയ്യണേ അപ്പോൾ അതിന് എന്നെയൊന്ന് സഹായിക്കാമോ ഓക്കേ താങ്ക് യു